ഹലോ ആ പറഞ്ഞോ ഞാൻ ഞാൻ വിളിച്ചതേ നമ്മുടെ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ വരുന്നുണ്ടല്ലോ അപ്പം അടുത്ത രണ്ടാഴ്ച്ച കഴിഞ്ഞിട്ടാണല്ലോ പെരുന്നാൾ അപ്പം അതിന് നമുക്ക് കുട്ടികളുടെ കുറേ കലാ പരിപാടികൾ വേണം കഴിഞ്ഞ വർഷം ചെയ്തതു പോലെ തന്നെ ഉം അപ്പം കഴിഞ്ഞപ്രാവശ്യം സാറാണല്ലോ ഏ എന്തോ ആ സാറാണോ ചെയ്യുന്നത് കൊച്ചു കുട്ടികൾ ഓക്കെ ഓക്കെ ആ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതതാണ് അതുപോലത്തെ എന്തെങ്കിലും നല്ല വിഷയം ചെയ്യുകയാണെങ്കിൽ കുറച്ചു കൂടിയത് ആൾക്കാർക്ക് കുറച്ചു കൂടി കണക്റ്റ് ചെയ്യാൻ പറ്റും അവരേ ഇവിടെ ഇവിടുത്തെ സാഹചര്യമനുസരിച്ചെന്തെങ്കിലും ആയിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതു പോലെ അങ്ങനെ എന്തെങ്കിലുമാശയം തോന്നുന്നുണ്ടോ ആ ആ നല്ലതാണ് അതിൻ്റെ കൂട്ടത്തിൽ മയക്കു മരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടൊന്ന് മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാൻ പറ്റും ഉം അങ്ങനെ ആ ആ ഉം ആ ആ അത് ത് അതങ്ങനെ ചെയ്യാം അതുപോലെ പിന്നെ വാർഷികത്തിന് പിന്നെ കുമ്പസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊന്നു നോക്കണം എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുംബസാരിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം നമ്മളൊന്നു ശ്രദ്ധിച്ചിട്ട് അവരെ കുംബസാരിപ്പിക്കാൻ വേണ്ടി പുറത്തു നിന്നാണല്ലോ നമ്മളച്ഛന്മാരെ അറേഞ്ച് ചെയ്യുന്നത് അപ്പതിനനുസരിച്ച് അവരെ കുംബസാരിപ്പിക്കുവാൻ വേണ്ടിക്കൂടി നമ്മളൊന്നു ശ്രദ്ധിക്കണം ഏ കഴിഞ്ഞ പ്രാവശ്യമതു ചെയ്തതാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അത് ആ പ്രത്യേകിച്ചീ വാർഷിക ധ്യാനത്തിന് കുട്ടികളേ ഒന്നു ശ്രദ്ധിക്കുകയാണെ നല്ലതാണ് അവരെ കുറച്ചും കൂടിയൊക്കെ പ്രാർത്ഥിപ്പി ഉം ആ ആ ധ്യാനിപ്പി ധ്യാനിപ്പിക്കാൻ നമുക്ക് തിരുവനന്തപുരത്തു നിന്നൊരച്ഛൻ തന്നെയാണ് വരുന്നത് ന നല്ല നല്ല ധ്യാൻ കുട്ടികൾക്കൊരച്ഛന്മാരുടെ ധ്യാൻ തന്നെയാണവർ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് സംശയങ്ങൾ ചോദിക്കാനും ഒക്കെപ്പറ്റും അപ്പം അത് കുട്ടികൾ വരാത്ത കുട്ടികളുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വരാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരേക്കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിച്ചിട്ടു വരാൻ പറയണം മൂന്നു ദിവസമാണല്ലോ ക്ലാസ്സിനും എല്ലാം പുറത്തു നിന്നാൾ വരും അപ്പം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ അങ്ങു ചെയ്തോളൂ വലിയ തിരക്കൊന്നും കൂടാതെ തന്നങ്ങു ചെയ്താൽ മതി കേട്ടോ അപ്പം അതെല്ലാം സാറിനെ ഞാനങ്ങ് ഏൽപ്പിച്ചിരിയ്ക്കുകയാണ് ഓക്കേ അത് ടീമായിട്ടാണ് വരുന്നത് ടീമായിട്ടാണ് വരുന്നത് അ അതങ്ങനെ സാറു തന്നെ ചെയ്തോളൂ ഓക്കെ എന്നാൽ ശരി ശരി ആ ആ ആയിക്കോട്ടെ